ഹലോ ക്യാബ് ഏജൻസിയല്ലെ ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാനായിട്ട് ഒരു കാറ് വേണമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പം നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് തന്നെയാണ് കാറ് ബുക്ക് ചെയ്ത് പോയത് അപ്പം നമ്മൾക്ക് ആ സെയിം വണ്ടിയും ആ ഡ്രൈവറും തന്നെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ല സർവീസായിരുന്നു അത് കാരണമാണ് നിങ്ങളെത്തന്നെ വിളിച്ചത് അപ്പം ആ ഡ്രൈവറേയും ആ കാറും കിട്ടിയാൽ നല്ലതായിരുന്നു